ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണം അത്യാവശ്യം ബെറ്ററെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളു കാരണം നൂറ്റിനാൽപ്പത്തിയൊന്ന് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യേനെ സംബന്ധിച്ചെടത്തോളം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുവാനും ഒരുപാട് അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനൂള്ള സാധ്യത വളരേ കൂടുതലാണ് അപ്പോള് ഒരു ഗവൺമെൻറ്റ് സംവിധാനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലുള്ള ബംഗാൾ പോലുള്ള ഏരിയകളില് ഒരു ആരോഗ്യസംരക്ഷണം എന്ന് പറയുന്നത് വളരെ അവർക്ക് ഒരു എത്തിപ്പെടാൻ സാധിക്കാത്ത അത്രയും ദൂരത്തിലും അതുപോലെതന്നെ അവരുടെ സംവിധാനങ്ങള് ഒരു ആംബുലൻസ് പോലും അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട പ്ര പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങള് പോലും എ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പക്ഷെ ഈ സൗത്ത് ഇന്ത്യൻ ഏരിയയിലേക്ക് വരുമ്പോൾ കർണാടകയാണെങ്കിലും കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും അവരുടെ ആരോഗ്യ സംരക്ഷണം കുറച്ചുംകൂടി ബെറ്ററാണ് പ്രത്യേകിച്ചും കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്ത് ആ ഒരു എഡ്യൂക്കേഷനെന്ന് പറയുന്നെ എല്ലാവർക്കും തന്നെ ആ ഒരു എഡ്യൂക്കേഷനെന്നുള്ള സംവിധാനം വളരെ കൂടുതലായതുകൊണ്ടുതന്നെ ആ ഒരു എന്താണ് അവര് ആരോഗ്യത്തെ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് സർക്കാർ സംവിധാനങ്ങളും അതിന് വളരെ തീക്ഷ്ണമായിട്ട് തന്നെ പ്രവർത്തിക്കാറുണ്ട് അപ്പോള് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒരു രോഗം വന്നെയിഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ അതിൻ്റെ വാക്സിനേഷനും എല്ലാം ഏകദേശം കൃത്യമായ രീതിയിൽതന്നെ നടക്കാറുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പക്ഷെ ഉത്തരേന്ത്യൻ പോലുള്ള അല്ലെങ്കിൽ അവരുടെ ഇത് കുറഞ്ഞ സംസ്ഥാനങ്ങളെ വച്ച് അവർക്ക് വളരെ മോശമെന്നുള്ള രീതിയിലാണ് പക്ഷെ പ്രൈവറ്റ് മേഖല നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകള് വരണം വലിയ വലിയ മെഷിനുകൾ ഇറക്കി രോഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്തോളം ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ പൈസ അല്ലെങ്കിൽ അവരുടെ ആ ഒരു താങ്ങാൻ പറ്റുന്നതിലും അധികമായിട്ട് പലപ്പോഴും കാണാറുണ്ട്